ഹലോ എന്താണ് എവുടോട്ടുള്ള ബസ്സിലാണ് കയറേണ്ടത് ആ ഓക്കെ ഏത് ബസ്സിലാണ് ഇപ്പോൾ കയറിയത്

ഓ ആ ആ ബസ്സിൽ ആ ബസ്സിൽ ഞങ്ങളുടെ ബസ് ആ വഴി പോവില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഇപ്പം അവിടെ ഇറങ്ങുക അപ്പം വേറൊരു ബസ് ആ റൂട്ടിൽ വരുന്നുണ്ട് പുറകേ ഒരു ബോഡ് നോക്കിയല്ലേ കയറേണ്ടത് അത് നിങ്ങളുടെ ഉത്തരവാദിത്തം അല്ലേ ബോഡ് നോക്കാതെ കയറിയത്

എന്നാൽ ബസ്സിലുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ടു കയറാൻ മേലായിരുന്നോ ഇപ്പോൾ ബസ് ഇപ്പോൾ എടുത്തു പോയില്ലേ എടുക്കുന്നതിന് മുന്നേ ആയിരുന്നെങ്കിൽ ടിക്കറ്റ് വേറെ ആർക്കെങ്കിലും ഒക്കെ ആയിട്ട് എക്സ്ചെയ്ഞ്ച് ചെയ്യാമായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ അവിടെ ഇറങ്ങുകയാണ് ടിക്കറ്റ് ആർക്ക് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കും ആ ഇപ്പം നിങ്ങൾക്ക് ഈ പൈസയുടെ കാര്യത്തിൽ നമ്മക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പൈസ നമുക്ക് റീഫണ്ട് ഇല്ല പിന്നെ ഇപ്പം അവിടെ എന്താണേലും ഈ ബസ് ഇനി ആ റൂട്ടിൽ പോകില്ല ഇത് അവിടെ ഒരു മേൾ ഫ്രണ്ടിലത്തെ ജങ്ഷനിൽ നിന്നു ലെഫ്റ്റ് എടുത്തു പോകും പിന്നെ ആ ജങ്ഷനിൽ നിന്ന് പിന്നെ കോട്ടയത്തോട്ട് നിങ്ങൾക്ക് പോകണ്ട സ്ഥലത്തേക്ക് പിന്ന ബസ് വരുന്നത് ഒരു അഞ്ച് മിനിറ്റ് ആ ജങ്ഷനിൽ നിന്നാൽ നിങ്ങൾ പറയുന്ന റൂട്ടിലേക്കുള്ള ബസ് വരൂ പുറകെ വേറെ ബസ് വരുന്നുണ്ട് ആ പക്ഷേ യാത്രക്കാരനെന്ന നിലയ്ക്ക് താങ്കളുടെ ഉത്തരവാദിത്ത്മ് അല്ലേ ബസ്സിലെ ബോഡ് കറെക്റ്റ് ആണോ എന്ന് ഉറപ്പിക്കുന്നത് ബസ് കയറ് വണ്ടി എടുക്കാൻ നേരം കുറച്ച് പെട്ടെന്ന് എല്ലാവരേയും വിളിച്ച് പെട്ടെന്ന് കയറ്റും അത് സ്വാഭാവികം അല്ലേ അപ്പോൾ യാത്രക്കാരൻ്റെ ഉത്തരവാദിത്തം ആണ് വണ്ടി കറക്റ്റ് ആയിട്ടാണൊ യാത്ര ചെയ്യാൻ ഇരിക്കുന്നതിന്ന് നമുക്ക് എന്തോരം കാര്യങ്ങൾ ചിന്തിക്കാൻ ഉള്ളതാണ് ഈ വണ്ടി ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്താലെ ഇവിടെ നിന്ന്

എന്തേലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഓഫീസിൽ പറഞ്ഞാൽ മതി ഇനി ഞങ്ങൾ ഞങ്ങളുമായിട്ടുള്ള ഡീലിങ്സല്ല ഓഫീസിൽ നേരിട്ട് പറഞ്ഞാൽ മതി

എന്നാൽ പിന്നെ ഉത്തരവാദിത്തം ഉള്ളവരൊക്കെ കയറ് ശരി എന്നാൽ ആ